അങ്ങനെ പാചക മത്സരത്തിലൊന്നും പങ്കെടുത്തിട്ടൊന്നുമില്ല യൂ ട്യൂബില് വീഡിയോ കുക്കിങ് വീഡിയോ ഉണ്ടാക്കി ഇടണമെന്ന് ആഗ്രഹമുണ്ട് ഞാനൊരു യൂ ട്യൂബ് ചാനല് തുടങ്ങി എനിക്ക് കുറച്ച് മൊയല് ഗിനി പിഗ് ലവ് ബേഡ്സക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനെന്ത് ചെയ്തു അതേപോലെ നമ്മുടെ കൊറോണ ടൈമായിരുന്നേ അപ്പെല്ലാവരും ഇങ്ങനെ കുറെ ചെടിയുടെ ഒക്കെ വീഡിയോ എടുത്ത് യു ട്യൂബ് ചാനല് തുടങ്ങി അപ്പം എൻ്റെ എൻറ്റൊരു ഫ്രണ്ടുണ്ട് അവള് തുടങ്ങിയിട്ട് അവക്ക് അവള് പറഞ്ഞു അവക്ക് മന്ത്ലി പതിനേഴ് പതിനെട്ട് രൂപ കിട്ടിയെടി ഞാൻ വീഡിയോ എടുത്ത് വ്യൂവേഴ്സിൻ്റെ ഇത് പോലെയാ നമുക്ക് മോണിറ്ററ് ചെയ്താൽ പൈസ കിട്ടുമെന്ന് അപ്പം ഞാനെന്ത് ചെയ്തു ഈ ഹൽവയുണ്ടാക്കി നമ്മുടെ പിന്നെ ഇതുണ്ടല്ലോ ക്യാരറ്റ് ക്യാരറ്റ് വെച്ച് ഹൽവയുണ്ടാക്കി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് എനിക്ക് ഇടാനറിയില്ല അവളെനിക്ക് പറഞ്ഞ് തന്നു എങ്ങനെയാണ് ഇടണ്ടത് എങ്ങനെയാണ് നമ്മള് എഡിറ്റ് ചെയ്യണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നു പക്ഷെ എനിക്ക് ഇന്ന് വരെ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല പേഴ്സണലി നമ്മുടെ പേഴ്സണലായിട്ട് നമുക്ക് ഇങ്ങനെ പബ്ലിഷും അല്ലങ്കിൽ നമ്മുടെ നമ്മുടെ മാത്രമായിട്ട് ലോക്കാക്കി ഇടാൻ പറ്റും അങ്ങനെ ഇപ്പഴും എൻ്റെ യുട്യൂബിൽ കിടക്കുന്നുണ്ട് ആ ലോക്കാക്കിട്ടുള്ള ആ വീഡിയോ അതും ആ ഗിനി പിഗ് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അത് രണ്ടിൻറ്റെയും വീഡിയോ ഇപ്പഴും ലോക്കായി കിടക്കുന്നുണ്ട് പക്ഷെ മത്സര പരിപാടീലൊന്നും പങ്കെടുത്തിട്ടില്ല ഞാൻ എനിക്കൊരു ചാനല് തുടങ്ങണമെന്ന് വച്ച് ഞാൻ സ്റ്റാർട്ട് അപ്പ് ചെയ്തതായിരുന്നു പക്ഷെ എനിക്കത് ഇതുവരെ ആയിട്ട് വിജയകരമായിട്ട് ഇപ്പം അതുകഴിഞ്ഞ് ഇപ്പം രണ്ട് മൂന്ന് വർഷമായി അത് പബ്ലിഷ് ചെയ്യാനോ അത് അതുവായിട്ട് മുന്നോട്ട് പോകാനോ എനിക്ക് സാധിച്ചിട്ടില്ല